ഹലോ ആ എടാ നമ്മുടെ വയനാട്ടിലെ നല്ലൊരു എന്താ പറയാ നല്ലൊരു ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാന്നൊന്ന് പറഞ്ഞു തരുവോ ആ ഓക്കെ ഓക്കെ ആ നെറ്റിലോ ഇന്ന് ഇപ്പോൾ എന്തേൽ ഒരു ആപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമുക്കൊന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ നല്ല റസ്റ്റോറൻറ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നീ ഇപ്പോൾ ഒന്ന് നോക്കിയിട്ട് കോൾ കട്ട് ചെയ്യണ്ട നീ ഒന്ന് നോക്കിയിട്ട് എന്നെ ഒന്ന് ഇപ്പോൾ ഒന്ന് പറയോ ആ എനിക്ക് കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർ എന്താ പറയാ അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ഫുഡ് കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ആവശ്യം ആ ഓക്കെ ഓക്കെ ഒന്ന് ഒന്ന് നോക്കിയിട്ട് ഒന്ന് പറ ആ വിൽ വിൽറ്റൺലേ അതെവിടെയാ ബത്തേരിയാ ആ ബത്തേരി ആ അവിടെ എന്തൊക്കെയാണ് ശരിക്കും സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ് ഉള്ളത് ആ ചട്ടിച്ചോറ് ആ ആ ഓക്കെ ഓക്കെ ആ ചട്ടിച്ചോറിൻറ്റെ കൂടെ എന്തൊക്കെയാണ് ഉണ്ടാവുക ആ ഓക്കെ ഓക്കെ ബീഫ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എല്ലാം നോൺവെജ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഓ ചട്ടി വീട്ടിലും നമുക്ക് കൊണ്ടുപോകാലേ ആ ഓക്കെ ഓക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല രീതിയിലുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ അല്ലേ അവിടെയുള്ളത് ഓക്കെ ഡാ എന്നാൽ ഞാൻ എന്നാൽ അവിടെ സജസ്റ്റ് ചെയ്യാൻ അവരോട് ഒക്കെ ഡാ ഓക്കെ എന്നാൽ ശരി എന്നാൽ